ഹലോ ആ ഇത് താജ് റസ്റ്റോറൻ്റല്ലേ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ രണ്ട് ചിക്കൻ എന്തൊക്കെ ഫുഡാണ് അവിടെയുള്ളേ എന്നാ രണ്ട് ചിക്കൻ ബിരിയാണി ആ പിന്നെ മൂന്ന് പൊറോട്ട പൊറോട്ടയ്ക്ക് കറി എന്തൊക്കെയാണ് ഉള്ളത് അവിടെ ആണോ ആ എന്നാൽ രണ്ട് ബീഫ് ആ അതേ അതേ ഫ്രൈഡ് റൈസുണ്ടോ ആ എന്നാൽ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ആ അതിന്റെ കൂടെ ടൊമാറ്റോ സോസും കൂടെ വച്ചേക്ക് ട്ടോ ആ ഓക്കേ ഓക്കേ സ്ഥലം മുക്കമാണിവിടെ മുക്കം ആ അഡ്രെസ്സ് കൊട്ടത്തുറുവേന്നാണ് കൊട്ടത്തുറുവ ആ അതേ അതേ ആ ഓക്കേ നിങ്ങള് വരുമ്പോൾ വിളിച്ചാൽ മതി ആ ഓക്കേ ഓക്കേ ആ ശരി